നമ്മുടെ ഇവിടെയുള്ള സാംസ്കാരിക സംസ്കാരം അല്ലെങ്കിൽ നമുക്കിവിടെ വരുന്ന കലാസാംസ്കാരിക രംഗം എന്ന് പറഞ്ഞാൽ നാടകം പിന്നെ ആ തിരുവാതിര ഒപ്പന ഡാ പോലെയുള്ള ഡാന്സ് ഫോമുകൾ അതൊക്കെയാണ് അപ്പോൾ അതിൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഉത്സവങ്ങൾ പറമ്പുകളിലും ഒക്കെ പോയിട്ടാണ് നമ്മൾ നാടകങ്ങളും മറ്റുമൊക്കെ കാണുന്നത് അതായത് ഈ ഉത്സവ സീസണുകളില് മാത്രമായിരുന്നു ഇങ്ങനെയുള്ള കല നാടകങ്ങള് പോലെയുള്ള കലാരൂപങ്ങള്ക്ക് അല്ലെങ്കില് അതില് അഭിനയിക്കുന്നവര്ക്ക് അവസരങ്ങള് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അവർ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം സംസ്ഥാനത്ത് പലതരം സാംസ്കാരിക മേളകളും ഇടക്കിടക്ക് ഓരോരോ എന്താണ് പല തരത്തിലുള്ള മേളകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാടകങ്ങളും മറ്റു നാടന് കലാരൂപങ്ങളുമൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ക്ലബുകളും മറ്റുമൊക്കെ എന്താണ് അവരുടെ വാര്ഷികങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂ കോളേജുകളില് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തോന്നുണ്ട് അവര് ഇങ്ങനെയുള്ള നാടകങ്ങളോ അല്ലെങ്കിൽ മറ്റു നാടന് കലാരൂപങ്ങളൊക്കെ നാടന് പാട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഒക്കെ അവതരിപ്പിക്കുന്നു അതിനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഴയത് പോലെ ഉത്സവ സീസണ് നോക്കിയിരിക്കേണ്ട ആവശ്യം ഈ കലാകാരന്മാര്ക്ക് വരുന്നില്ല അതേപോലെ തന്നെ പഴയത് പോലെയല്ല ഇപ്പോൾ ഒരുപാട് നാടക ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒരുപാട് കലാകാരന്മാര്ക്ക് അവസരങ്ങള് ലഭിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ പലതരത്തിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളും നമുക്ക് കാണാനായിട്ട് ഒരുപാട് മേളകള് ഗവണ്മെന്റ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കലാകരന്മാര്ക്ക് അത് വളരെ എന്താന്നാ അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള സംസ്കാരിക മേളകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അഭിനയ കലകളിലും മറ്റും ഒക്കെ അല്ലെങ്കിൽ മറ്റു കലകളിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെ വളര്ത്തിക്കൊണ്ട് വരുന്നതിനു വേണ്ടിയിട്ട് വേനല്ക്കാല ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട്

ഇപ്പോൾ അവര്ക്ക് എന്തുചെയ്യാൻ അവര്ക്ക് എന്താണ് അവരുടെ അവര്ക്കുള്ളിലുള്ള കല അവരുടെ കലാവാസന വളര്ത്തിയെടുക്കാനായിട്ട് പറ്റുകയും അതുപോലെ തന്നെ അവർ തന്നെ പഠിച്ചിറങ്ങുന്നവര്ക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്